ഞാനൊരു മുസ്ലിമാണ് ആയതിനാല് ഗ്രാമത്തിലെ ആരാധനമൂർത്തികളെകുറിച്ചൊന്നും അങ്ങനെ ഒരു ധാരാളിത്തമായ അറിവുകൾ എനിക്കില്ല എങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ട് ആ കാവിലെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് പരമശിവനാണ് അവിടെ എല്ലാ മാസവും ഒന്നാം തിയതി വിളക്ക് കത്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളുണ്ട് വർഷത്തിൽ ഒരിക്കല് ഉത്സവം നടത്തുകയും ആ ഉത്സവത്തിന് ഒരുപാട് താലപ്പൊലിയും ആനയും പരിവാരങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആചാരങ്ങളും അവിടെ നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്